ഒഴിവു സമയങ്ങളിൽ കൂടുതലും ഞാൻ ചെയ്യാറുള്ളത് വ്യത്യസ്തമായ വിഭവങ്ങൾ വീട്ടിൽ ഉണ്ടാക്കുകയും അത് പ്രിയപ്പെട്ടവർക്ക് നൽകുകയുമാണ് അത് ആസ്വദിച്ച് അവർ കഴിക്കുന്നതാണ് എൻ്റെ സന്തോഷം പാചക ക്ലാസ് എന്ന വിധത്തിൽ ഞാൻ ഞാൻ പഠിച്ചത് കേക്കുണ്ടാക്കാനാണ് പഠിച്ചത് നേരമ്പോക്കിനാണെങ്കിലും ഒരു സമയത്ത് അതിനെ ഞാനെൻ്റെ വരുമാന മാർഗ്ഗമായി മാറ്റി ഇതിലൂടെ ഞാൻ മനസ്സിലാക്കിയത് കടയിൽ നിന്നും വാങ്ങുന്ന മായം ചേർന്ന ആഹാരം പ്രിയപ്പെട്ടവർക്ക് വിളമ്പുന്നതിനേക്കാൾ ചിലവ് കുറഞ്ഞതും സ്വാദിഷ്ടവും മായം ചേരാത്തതുമായ ആഹാരം കുറച്ചു സമയം മെനക്കെട്ടാൽ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം എന്നതാണ്